ഇപ്പോൾ സ്ത്രീകള് പറഞ്ഞുകഴിഞ്ഞാൽ അവര് പുരുഷന്മാരാണ് മൈനായിട്ട് മത്സ്യബന്ധനത്തിന് കാര്യങ്ങൾക്കൊക്കെ പോകാറ് അപ്പോൾ കടൽ ഭയങ്കര റിസ്കായത് കൊണ്ട് അധികം സ്ത്രീകൾ സ്ത്രീകൾ അതിനുവേണ്ടി പോകാറില്ല ഇപ്പോൾ സ്ത്രീകൾ എന്താ ചെയ്യുക ചോദിച്ചാൽ അവര് നേരത്തെയും കാലത്തെയും എണീച്ച് അവർക്ക് വേണ്ട ഭക്ഷണം കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കും അവർക്കിപ്പോൾ വന്നുകഴിഞ്ഞാൽ എന്തെങ്കിലും വെച്ച് നേരത്തിന് ഭക്ഷണം വെച്ചുകൊടുക്കുക അത്പോലെ നേരത്തിന് അവര് പിടിച്ചു വരുന്ന മീൻ വിറ്റുകൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളാണ് സ്ത്രീകൾ മൈനായിട്ട് ചെയ്യുന്നത് അവർക്ക് കടലിൽ പോവാൻ പറ്റില്ലെന്ന് വെച്ചുകഴിഞ്ഞാൽ കടല് അങ്ങനെ അവിടെ താമസിക്കുന്നവരുപോലും അങ്ങനെ കടലിലേക്ക് സ്ത്രീകള് കൂടുതൽ ഉള്ളിലേക്ക് പോകാറില്ല അത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കടൽ എപ്പഴാണ് പ്രക്ഷോഭം അതായത് കടലിൻ്റെ തിരകൾ വലുതാവുക അല്ലെങ്കിൽ കടല് കാറ്റടിക്കുക അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ വരും അപ്പോൾ അവർക്ക് ബോട്ടിലങ്ങനെ പുരുഷന്മാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പൊന്നുമില്ല എന്തുവെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡ്രസ്സും കാര്യങ്ങളും അങ്ങനെ പ്രശ്നമൊന്നുമില്ല പക്ഷെ സ്ത്രീകൾക്കാവുമ്പോ അവരുടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം പിന്നെ ഓരോ സിറ്റുവേഷനിലവർക്ക് ചില സമയത്ത് അത് ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ അത്കൊണ്ടൊക്കെയാണ് സ്ത്രീകൾ മത്സ്യബന്ധനത്തിന് കടലിൽ പോവാത്തത്